എൻറെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വിലകല്പിക്കുന്നത് എന്ന് പറയുന്നത് എന്റെ കുടുംബം ആണ് എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻറെ ഭർത്താവ് എന്റെ രണ്ടു മക്കൾ എന്നവർ ചേർന്നവയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയചെറിയ സന്തോഷങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റോം വലിയ സന്തോഷമായി മാറുന്നത് വീട്ടിലെ സന്തോഷം ഒരു കാരണവശാലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട് ഒരു കുടുംബത്തെ ഇത്ര മാത്രം സ്നേഹത്തോടെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സഹായിക്കൻ സഹായിക്കാൻ എന്നെകൊണ്ട് സാധിക്കുന്നു എത്രയോ സന്തോഷത്തോടെ എത്രേയോ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അതുപോലെ ആണ് ജീവിക്കാൻ പറ്റുന്നത് ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും സന്തോഷവും സങ്കടോം എല്ലാം ആയിട്ടാണ് എന്റെ കുടുംബത്തെ ഞാൻ നോക്കുന്നത് പക്ഷേ അതിൽ ഒന്നും തളരുകയോ സങ്കടത്തിൽ ദുഖിക്കുകയോ ഒന്നും തളരാതെ നിയന്ത്രിക്കാനും ഞാൻ നോക്കുന്നു അത്രമാത്രം എന്റെ കുടുംബത്തെ ഞാൻ സ്നേഹിക്കുകയും കരുതുകയും ചെയുന്നു